ഹലോ ആഹ് ഇത് റെസ്റ്റോറെൻ്റല്ലെ റോളക്സ് അവിടെ ട്രഡീഷണൽ ഫുഡ് എന്തൊക്കെയാണ് ഉള്ളത് ആഹ് സദ്യേൻ്റെ കൂടെ കറികൾ വെറൈറ്റി എന്തെങ്കിലും ഒക്കെ ഉണ്ടോ ആഹ് ഓക്കേ ഇത് എവിടെ ആയിട്ടാണ് സ്ഥലം എവിടെ ആയിട്ടായിരുന്നു മാനന്തവാടിലെ വയനാട് ആഹ് ഓക്കേ ഞാൻ തിരുവനന്തപുരത്തു നിന്ന് ആയിരുന്നു അപ്പോൾ എനിക്ക് രണ്ട് ദിവസത്തെ അവിടെ ഒരു ഒന്ന് വയനാട് മൊത്തം കവർ ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു അപ്പോൾ മാനന്തവാടി ഏരിയ ഉണ്ടായിരിന്നു അപ്പോൾ അവിടെ എന്തൊക്കെയാ ഫുഡ് എന്നറിയാൻ വേണ്ടി വിളിച്ചതാണ് നോൺ വെജ് എന്തെങ്കിലും ഒക്കെ ഉണ്ടാകുമോ നോൺവെജ് ഉണ്ടാവോ നോൺ വെജിന് എന്തൊക്കെ ആയിരിന്നു ഉണ്ടാകുക എങ്ങനെ ആഹ് ആണോ ആണോ ആഹ് ഓക്കേ ഈ മീൽസിൽ മീൽസിൽ എന്തൊക്കെയാണ് കറികൾ ഏതൊക്കെയാണ് ഉള്ളത് മീൽസ് മീൽസേ ഊണിൽ എന്തൊക്കെയാണ് കറികൾ ഉള്ളത് ആണോ മത്തി വറുത്തത് അങ്ങനത്തെ ഒക്കെ ഉണ്ടാകുമോ ആഹ് ആണോ എവിടെ ആയിട്ടായിരിന്നു സ്ഥലം കറക്ട് ലൊക്കേഷൻ എവിടെ ആയിട്ടായിരുന്നു ടൗണിൽ തന്നെയാണോ ആഹ് അപ്പോൾ ഈ മൂന്ന് നമുക്കിപ്പോൾ മൂന്ന് നേരം ഭക്ഷണം വേണെങ്കിൽ ഈ മൂന്ന് നേരം ഓർഡർ ചെയ്യാൻ പറ്റുമോ ഉണ്ടാവുമല്ലേ ആഹ് സ്റ്റേ ഉണ്ട് ആണോ അപ്പോൾ ഇതിവിടെ ഇപ്പം ഒരു മീൽ ഓർഡർ ചെയ്യണമെങ്കിൽ എത്ര രൂപ വരും റേറ്റ് എത്രയായിരുന്നു ഇരുന്നൂറാണോ ഒരാൾക്കാണോ അതോ നമ്മൾ നാല് പേർക്കാണോ ഒരാൾക്ക് ഇരുന്നൂറ് അല്ലേ ഈ പന്ത്രണ്ട് കൂട്ടം കറികളും എല്ലാം കൂടി ആഹ് അത് റൂമിലേക്ക് എത്തിച്ച് തരുമോ ആണോ ആഹ് ഓക്കേ അപ്പോൾ റൂമ് റൂമിന് എത്രയാണ് റേറ്റ് വരുന്നത് ആഹ് ഓക്കേ ഓക്കേ രാവിലെ എത്ര മണിക്കാണ് ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കുന്നത് ആഹ് അങ്ങോട്ട് ഇറങ്ങി വരണം അല്ലേ ആഹ് ഓക്കെ ഓക്കെ നമ്മൾ ഒരു പത്ത് പതിനഞ്ച് പേര് വരുന്നുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് എല്ലാവർക്കും കൂടി കഴിക്കാൻ ഉള്ള സൗകര്യം ഒക്കെ ഉണ്ടാവില്ലേ ആഹ് ഓക്കേ ഓക്കേ ഞാൻ നമ്മൾ എന്നാൽ മറ്റന്നാൾ എത്തും അവിടേയ്ക്ക് ആഹ് ഓക്കേ ഓക്കേ